ഇപ്പോൾ ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലൊക്കെ നമ്മൾ കണ്ട് വരുന്ന മികവ് എന്നൊക്കെ പറയാനാണെങ്കിൽ കൂടുതലെന്താ പറയാ ഇൻറ്റർനെറ്റിൻറ്റെ ഇതും പിന്നെ പുതിയ പുതിയ എന്താ പറയാ അപ്ഡേഷൻസും കാര്യങ്ങളക്കെയാണ് മറ്റേ ഫോണീൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോണിൻറ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ അങ്ങനത്തൊക്കേ എന്നാ എന്താ പറയാ സാങ്കേതികവിദ്യയിൽ വരുന്ന ഭയങ്കര ഒരു മികവ് തന്നെയാണ് മൊബൈൽ ഫോണൊക്കെ ആൻഡ്രോയിഡ് ഫോണുകൾഅങ്ങനത്തെ ഫോണുകളക്കെ വന്നതോട് കൂടി ഭയങ്കര എന്താ പറയാ ഇൻറ്റർനെറ്റും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടി സാങ്കേതികവിദ്യയിൽ വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ടീ വി ടെലിവിഷനിലൊക്കെ ഒരുപാട് ചാനലുകളും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടി നമുക്ക് അതിൻ്റെ ഡീറ്റൈൽസും കാര്യങ്ങളുമൊക്കെ പെട്ടന്ന് മനസ്സിലാകുന്നുണ്ട് ന്യൂസ് ചാനലുകൾ അങ്ങനെയൊക്കെ വന്നതോട് കൂടി സാങ്കേതിക വിദ്യയിൽ നല്ലൊരു മികവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പറയാനാണെങ്കിൽ എന്താ പറയാ പോസ്റ്റും കാര്യങ്ങളു മറ്റേ എലക്ട്രിസിറ്റിയൊക്കേ എന്താ പറയാ സാങ്കേതിക വിദ്യയിലെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് വെള്ളത്തിൽ നിന്ന് കറൻറ്റ് ഉല്പാദിപ്പിക്കുന്നതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ നമുക്ക് താൽപര്യമുള്ള ഒരു കാര്യം തന്നെയാണ്